നിങ്ങളുടെ ഇഷ്ടപെട്ട വിഭവം ഇഡലിയും സാമ്പാറുവാണല്ലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് ഒന്ന് വിവരിക്കാമോ രണ്ട് ഗ്ലാസ് പച്ചരി അര ഗ്ലാസ് ഉഴുന്ന് രണ്ട് ഗ്ലാസ് പച്ചരി ആദ്യം വെള്ളത്തിലിട്ട് നന്നായി മൂന്നാല് വെള്ളം കഴുകുക എന്നിട്ടത് കുതിരാൻ വയ്ക്കുക ഉഴുന്നും അതുപോലെ രണ്ട് മൂന്ന് വെള്ളം കഴുകിയിട്ട് കുതിരാൻ വെക്കുക അതില് ഒരു അര സ്പൂൺ ഉലുവയുംകൂടി ചേർക്കുക രണ്ട് മണിക്കൂറ് കഴിഞ്ഞിട്ട് ഉഴുന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരയ്ക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് വെള്ളം ചേർത്തരച്ചാൽ നല്ല പതഞ്ഞ് സോഫ്റ്റായിട്ട് കിട്ടും അത് കഴിഞ്ഞ് അരിയും നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് മിക്സ് ചെയ്ത് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് രണ്ട് മണിക്കൂറ് പൊങ്ങാൻ വെയ്ക്കുക രണ്ട് മണിക്കൂറിന് ശേഷം ഇഡലി പാത്രം അടുപ്പില് വെച്ച് വെള്ളം ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ ഇഡലി തട്ടിൽ എണ്ണപുരട്ടി മാവ് കോരിയൊഴിച്ച് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുക ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് തീ കുറച്ച് വേവിച്ചതിന് ശേഷം അത് പുറത്തെടുത്ത് ഒരു അഞ്ച് മിനിറ്റ് തണുക്കാൻ വെക്കണം അത് ഇളക്കി എടുക്കാൻ എളുപ്പത്തിനായിട്ട് ഒര് സ്പൂണ് വെള്ളത്തില് ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തിട്ടിട്ട് വെള്ളത്തിലൊന്ന് സ്പൂൺ മുക്കിയിട്ട് ഇഡ്ഡലി ഇളക്കി എടുക്കാവുന്നതാണ് ഇഡ്ഡലി റെഡി സാമ്പാർ ഉണ്ടാക്കുന്ന രീതി അര ഗ്ലാസ്സ് സാമ്പാറ് പരിപ്പ് വെള്ളത്തില് കുതിരാനിട്ടതിന് ശേഷം പച്ചക്കറി നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികള് ചേർക്കാം അരിഞ്ഞുവെ ക നന്നായിട്ട് കഴുകി അരിഞ്ഞ് വെച്ചതിന് ശേഷം കുക്കറില് വെള്ളത്തിൽ കുതിരാനിട്ടിരിക്കുന്ന പരിപ്പും കുറച്ച് ഒരുപിടി ചെറിയ ഉള്ളിയും ഒരു തക്കാളിയും അമരയ്ക്കയും ശകലം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒരു സ്പൂണ്

സാമ്പാറിനരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും രണ്ട് സ്പൂണ് സാമ്പാർ പൊടി ശകലം മുളകുപ്പൊടി മഞ്ഞ മല്ലിപൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് കായപ്പൊടി ഇത്രയും ചേർത്ത് അടച്ച് ഒരു വിസില് കേൾപ്പിച്ചതിന് ശേഷം അത് തണുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു നെല്ലിക്ക വലുപ്പത്തില് ഉള്ള ഒരു പുളി പുളി എടുത്ത് പിഴിഞ്ഞ് അതിലും കൂടെ അതില് ചേർത്ത് ഉലുവാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കി ഇറക്കിയതിന് ശേഷം കടുക് അത് താളിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതില് എണ്ണയൊഴിച്ച് കടുക് പൊട്ടി പൊട്ടിച്ചതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും മല്ലിയിലയും വഴറ്റി ഇതിൻ്റെ സാമ്പാറിൻ്റെ മുകളിലൊഴിച്ച് ചൂടോടെ ഉപയോഗിക്കാം